ഞങ്ങളുടെ ഇവിടെ ഒരു സാർ ഇതുപോലെ കരകൗശല മേഖലയിൽ സജീവമാണ് അദ്ദേഹം അത്യാവശ്യം ക്രാഫ്റ്റ് മേക്കിങ്ങാണ് അദ്ദേഹത്തിന് പണി പെയിൻറ്റിങ്ങും അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ തന്നെ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിക്കാറുണ്ട് എല്ലാ അദ്ദേഹം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പെയിൻറിങ്ങായാൽ പോലും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ അതുപോലെതന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള കുട്ടികളോടായാലും പഠിക്കുന്ന സ്റ്റുഡൻസിനോടായാലും പുള്ളി പറയാറുണ്ട് അവരവരുടേതായ ഒരു സിഗ്നേച്ചർ വെക്കണമെന്ന് അത് നോക്കിയിട്ടുതന്നെയാണ് കുട്ടികൾ വരയ്ക്കുമ്പോഴായാലും അവരുടെ സിഗ്നേച്ചർ വയ്ക്കും അതുപോലെ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴായാലും അവരുടെ അവരുടേതായിട്ടുള്ള ഒരു ലോഗോ ഒരു സിംബൽ വയ്ക്കാറുണ്ട്